ഇപ്പോൾ ഗെയിമുകൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതീയിലുള്ള ഗെയിമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈലിലും ലാപ്ടോപ്പിലുമൊക്കെ അവൈലബിൾ ആണ് കാരണമെന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നാമത് കമ്പ്യൂട്ടർ യുഗം കാര്യങ്ങളൊക്കെ ആയത്കൊണ്ട് അവർക്ക് പൊതുവേ കുട്ടികളാണെങ്കിലും വല്യവരാണെങ്കിലും മുതിർന്നവരോക്കെയാണെങ്കിലും ഇപ്പോൾ ഫോണിലൂടെ ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഇപ്പോൾ ഗെയിം കളി വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ഇവർ ഗെയിമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും കളിക്കുന്നത് ഈ ഒരു മൊബൈലിലൂടെയും ലാപ്ടോപ്പിൽ കൂടെയും ഒക്കെ ആണ് ഇപ്പോൾ നമ്മളൊക്കെ കളിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൂടുതലായിട്ടും ഈ വണ്ടീലൊക്കെ ഓട്ടം പോയി അവിടെ ഇവിടെ എങ്കിലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കളിക്കുന്നതല്ലാണ്ട് ഇതിന് അഡിക്റ്റ് ആയിട്ടുള്ള കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഫുൾ ടൈമും ഫോണും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് എന്തായാലും പറ്റില്ല എന്നാണ് ഒരു ഇത് പറയുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഗെയിമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഗെയിമുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പബ്ജി ഉണ്ട് ഫ്രീ ഫയർ ഉണ്ട് അങ്ങനത്തെ പല രീതിയിലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഇപ്പോൾ പബ്ജിയാണ് കൂടുതലായിട്ടും ആൾക്കാര് കളിക്കുന്നത് ഒരിടയ്ക്ക് ഇത് ബാൻ ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു ഇപ്പോൾ വന്നിട്ടുണ്ട്